യോഗ ഭാരതത്തിലെ ഋഷിവര്യന്മാർ വികസിപ്പിച്ചെടുത്ത മൈൻ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ നിലനിർത്താൻ സാധിക്കുന്ന ഒരായോധന അഭ്യാസമാണ് യോഗ വേദകാലഘട്ടം വേദകാലഘട്ടങ്ങളിലെ നമ്മുടെ ഋഷിവര്യന്മാർ വികസിപ്പിച്ചെടുത്ത ഒരു ജീവിതചര്യയാണ് യോഗ യോഗയോടുളള മന്ത്രങ്ങളും ശരണങ്ങളുമുൾപ്പെടെ മന്ത്രങ്ങളാണ് അതിൽ കൂടുതലും നിറച്ചിരിക്കുന്നത് പല തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് ഗായത്രി മന്ത്രം സൂര്യനമസ്കാരം അങ്ങനെയുള്ള പല മന്ത്രങ്ങൾ യോഗയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തേയും ഇപ്പോൾ ഏകാഗ്രതയോടെ നിലനിർത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയ ജീവിതചര്യകളിലൊന്നാണ് യോഗ പരിശീലനം യോഗ തുടക്കക്കാർക്കായിട്ട് യോഗ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഏറ്റവും നല്ല യോഗ മുറയാണ് ധ്യാനം അല്ലെങ്കിൽ നമ്മൾ പറയും മെഡിറ്റേഷൻ എന്നു പറയും പല തരത്തിലുള്ള യോഗാസനങ്ങൾ യോഗയിലുണ്ട് ശീർഷാസനം മയൂരാസനം കുക്കുടാസനം പത്മാസനം ശവാസനം ഏറ്റവും അവസാനം ഒരു യോഗ ചെയ്ത് ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്ന ആസനമാണ് ശവാസനമെന്ന് പറയുന്നത് മനസ്സിനെയും ശരീരത്തെയും റിലാക്സാക്കി നമുക്ക് പിന്നെ മനുഷ്യൻ്റെ മനസ്സിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് യോഗ സഹായിക്കുന്നുണ്ട് യോഗ നമുക്ക് യോഗ വികസിപ്പിച്ചെടുത്ത് യോഗ യോഗ വികസിപ്പിച്ചെടുത്ത് നമ്മുടെ ഭാരതത്തിലെ ഋഷിവര്യന്മാരാണ് ആ ആ യോഗയെ ലോകത്തിൻ്റെ ആ യോഗയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അംഗീകരിച്ചത് യുനസ്കോ ഉൾപ്പെടെ ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ നമ്മുടെ യോഗയെ ജൂൺ ഇരുപത്തൊന്ന് ലോക അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ലോകം ഒട്ടാകെ ആചരിക്കുന്നു അതാണിന്ന് യോഗയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസെന്ന് പറയുന്നത് പ്രതേകതയെന്ന് പറയുന്നത് യോഗ യോഗ നിലവിൽ കൊണ്ടുവന്നത് നമ്മുടെ ഭാരതത്തിലെ ഋഷിവര്യന്മാരാണെന്ന് നമുക്ക് ആശംസിക്കാം നമുക്ക് ആശ്വസിക്കാം ഈ നമ്മൾ വികസിപ്പിച്ചെടുത്ത യോഗയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എടുത്തിരിക്കുന്നത് ആ യോഗയാണ് യോഗേ നമുക്കേറ്റവും കൂടുതൽ യോഗയിൽ ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആസനങ്ങളെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ധ്യാനമാണ് ധ്യാനം വലിയ ശാരീരിക അധ്വാനം കൂടാതെ നമുക്ക് ധ്യാനത്തിലേർപ്പെടാൻ സാധിക്കും നമ്മൾ നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്തുകൊണ്ട് പല തരത്തിലുള്ള കർമ്മം ചെയ്തത് വഴി നമുക്ക് പല തരത്തിലുള്ള നമ്മുടെ കർമ്മ മേഖലകളിലേക്ക് നമുക്ക് തിരിയാനായിട്ട് സാധിക്കും അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ പ്രയോജനകരമാണ് പല തരത്തിലുള്ള ഹൃദയത്തിന് ആരോഗ്യം നൽകുന്ന യോഗാസനങ്ങളുണ്ട് നമ്മുടെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യുന്ന യോഗാസനങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിലെ നടുവേദന സന്ധിവേദന ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ള പല തരത്തിലുള്ള യോഗാസനങ്ങളുണ്ട് പലപ്പോഴും നമ്മുടെ വണ്ണം കുറയ്ക്കുവാനും മറ്റെ ബോഡി മെയിന്റൈയിൻ ചെയ്തു നിർത്തിക്കൊണ്ട് പോകാനുമുള്ള പല തരത്തിലുള്ള യോഗാസനങ്ങളും നമ്മുടെ രാജ്യത്ത് നമ്മൾ യോഗയിലുണ്ട് യോഗയെന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനെയും കൂടി ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒന്നാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം യോഗയിൽ ഏറ്റവും നല്ല ആസനമെന്ന് പറയുന്നത് പത്മാസനം അതുപോലെ കുക്കുടാസനം പല തരത്തിലുള്ള ആസനങ്ങളുണ്ട് അത് ഡെവലപ്പ് ചെയ്യുക അതു വികസിപ്പിക്കുക അതു വികസിപ്പിക്കുന്നത് വഴി ദിവസവും യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയും ഫ്ലെക്സിബിളാവും നമ്മുടെ ശരീരവും ഫ്ലെക്സിബിളാവും നമ്മുടെ മൈന്റിനെയും അത് വികസിപ്പിച്ചു കൊണ്ടു പോകാനായിട്ട് സാധിക്കും യോഗ ഒരു ജീവിതചര്യ ജീവിതമല്ല ഒരു ജീവിതചര്യയാണ് യോഗ എന്നു പറയുന്നത് യോഗയിലെ യോഗയ്ക്കിപ്പോൾ പ്രാധാന്യം കൊടുത്തു കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം ഏവർക്കും വേണ്ടതെന്നാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് യോഗ അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ജൂൺ ഇരുപത്തൊന്ന് നാം ആചരിക്കുന്നു എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടന ഉൽപ്പെടെ ഉള്ള വിന്നൊ വിന്നൊ യുണൈറ്റഡ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന ഉള്പ്പെടെ ഉള്ള സംഘടനകൾ ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മളെ വിവരിച്ച് കഴിഞ്ഞു എന്നിരുന്നാലും യോഗയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കുഞ്ഞി കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന പല തരത്തിലുള്ള യോഗാസനങ്ങൾ നമുക്കുണ്ട് അത് പ്രായമായവരെയും മാത്രമല്ല പ്രായമായവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ തരത്തിലുള്ള പല തരത്തിലുള്ള രോഗങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട ഒരു ആശ്വാസമായിട്ട് നമുക്ക് യോഗയെ കാണാനായിട്ട് സാധിക്കും